ചുണ്ടന് വള്ളങ്ങൾ പോലെ കേരളാ സ്പെഷ്യൽ സാധനങ്ങളുടെ മിനിയേച്ചറുകള് സ്മാരകവസ്തുക്കളായിട്ട് നിർമ്മിക്കാനാകുമോയെന്ന് ചോദിക്കുകയാണെങ്കില് കേരളത്തില് അതിനെ അപേക്ഷിച്ച് മറ്റും നോക്കുകയാണെങ്കിൽ കൊട്ടത്തോണികളും അതുപോലെയുള്ള കഥകളികളൊക്കെയാണ് കേരള സ്പെഷ്യലായിട്ട് ഇപ്പം നിലവില് കാണാൻ കഴിയുന്നത് അപ്പോള് കേരള സ്പെഷ്യല് എന്നുപറയുന്നത് തന്നെ കഥകളി പോലെയുള്ള രൂപങ്ങളാണ് അതൊക്കെ മിനിയേച്ചറായിട്ട് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അതു തന്നെയാണ് നമുക്ക് സ്മാരകവസ്തുക്കളായിട്ട് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോള് അതാണ് കേരള സ്പെഷ്യലായിട്ട് മറ്റുള്ളൊരു സാധനമെന്ന് പറയുന്നത് ചുണ്ടൻ വള്ളങ്ങളെ പോലെ കേരള സ്പെഷ്യൽ സാധനങ്ങളുടെ മിനിയേച്ചറുകള് സ്മാരകവസ്തുക്കളായിട്ട് നിർമ്മിക്കാനായാണെങ്കിൽ അത് കഥകളി പോലെയുള്ള രൂപങ്ങളുടേതായിരിക്കണം